സാങ്കേതിക വിദ്യയുടെ വിദ്യയുടെ ഉപയോഗം നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ഇടപഴകാൻ വളരെ ഏറെ ഇപ്പോൾ സാഹചര്യമുണ്ട് ആളുകളെ കൂടുതൽ എടുക്കുവാൻ സോഷ്യൽ മീഡിയ വളരെ അധികം സഹായിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ പക്ഷെ പ്രതികൂല ഫലങ്ങളും ഒരുപാടാണ് ഒരു പോലെ ഒരു പോലെ തന്നെ അനുകൂല ഫലങ്ങളും പ്രതികൂല ഫലങ്ങളും ഉണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ സാങ്കേതിക വിദ്യയിലൂടെ മനുഷ്യർക്ക് വളരെ എളുപ്പത്തിൽ നിഷ്പ്രയാസം ലോകവുമായി ഇടപെഴുകാൻ സാധിക്കും പണ്ടുള്ള കാലങ്ങളിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരുമായി നമുക്ക് എന്തേലും ആശയവിനിമയമോ കാര്യങ്ങൾ അറിയിക്കുന്നതിനോ ലെറ്ററുകളിലൂടെ കത്തിൽ കത്തുകളിലൂടെ മാത്രമേ നമുക്ക് കഴിയുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ കാലം മാറി നമ്മുടെ ലഭ്യത മാറി സാങ്കേതിക വിദ്യകൾ മാറി ഈ സാങ്കേതിക പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ നമുക്ക് ഏത് മുക്കിലും മൂലയിലും ഇരിക്കുന്ന ആളുകൾക്ക് ആളുകളോടും നമുക്ക് നിഷ്പ്രയാസം കണ്ടു സംസാരിക്കുവാനും കണ്ട് അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കുവാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് പണ്ട് പണ്ടുള്ളവരെ പോലെ കത്തുകളിലൂടെ കത്തുകളെ ആശ്രയിക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങളും കാര്യങ്ങൾ നിഷ്പ്രയാസം നമുക്ക് അപ്പപ്പോൾ ഉടനടി തന്നെ നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാൻ പറ്റുന്നതാണ് ഫോണിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും സഹായത്തോടു കൂടി നമുക്ക് വീഡിയോ കോൾ ചെയ്തും വോയിസ് കോൾ ചെയ്തും നമുക്ക് ഏത് കോണിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താവുന്നതാണ് അതുപോലെ തന്നെ പണ്ടുള്ള കാര്യങ്ങൾ ബന്ധുക്കളോട് സംസാരിക്കുവാനും അവർക്ക് ഒരു കാര്യങ്ങൾ അറിയിക്കുന്നതിനും വേണ്ടി നമുക്ക് കത്തുകളിലൂടെ അല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ നമുക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെഴുകുവാൻ നമ്മുടെ ബന്ധുക്കളുമായിട്ട് ഇടപെഴുകുവാനും സൗഹൃദം പുതുക്കുവാനും ബന്ധം പുത് പുതുക്കുവാനുമൊക്കെ ഈ സാങ്കേതികവിദ്യകളിലൂടെ നമുക്ക് ഇപ്പോൾ സാധിക്കും അതുപോലെ തന്നെ ആളുകളെ കൂടുതൽ അടുക്കുവാൻ സോഷ്യൽ മീഡിയ വളരെ അധികം സഹായിച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളുമായ ആൾക്കാരെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ ലഭ്യം ലഭ്യമാകുന്ന ഒരു അവസ്ഥ ഈ സാങ്കേതികവിദ്യയുടെ കടന്നു വരവിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ തന്നെ നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി നമുക്ക് ഇടപെഴകാൻ ഈ സാങ്കേതികവിദ്യ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം നമ്മുടെ സാങ്കേതികവിദ്യയുടെ പ്രതികൂലം പ്രതികൂല അവസ്ഥയല്ല അനുകൂലമായ ഏറ്റവും നല്ല ഉപയോഗപ്രദമായ കാര്യങ്ങളാണ് പക്ഷെ അതുപോലെ തന്നെ പ്രതികൂലമായ ഫലങ്ങളും ഈ സാങ്കേതികവിദ്യ വഴി നമുക്ക് ഉണ്ട് ദൂഷ്യഫലങ്ങൾ സാങ്കേതികവിദ്യ വഴി നമുക്കുണ്ട് ഈ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം മൂലം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഇന്ന് നമ്മളെ ലോകത്ത് നടക്കുന്നുണ്ട് ഒരുപാട് കുട്ടികൾ നമ്മുടെ സാങ്കേതികവിദ്യ ഒരുപാട് കുട്ടികൾ യുവാക്കൾ യുവതികൾ പ്രായഭേദമന്യേ ഒരുപാട് പേർ നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് കുറ്റകൃത്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട് ഈ സാങ്കേതികവിദ്യ തെറ്റായി ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ഒരുപാട് ജീവിതങ്ങളാണ് നശിപ്പിക്കപ്പെടുന്നത് ഒരുപാട് പേരുടെ സ്വകാര്യത ഇതിലൂടെ നമുക്ക് നഷ്ടമാകുന്നുണ്ട് എല്ലാ മനുഷ്യരുടെയും സ്വകാര്യത ഇതുവഴി നമുക്ക് നഷ്ടമാവുന്നതായിട്ട് നമുക്ക് കാണാം ഒരുപാട് പേരുടെ പണമിടപാടുകൾ ഇത് വഴി പണമിടപാടിലൂടെ ഒരുപാട് പൈസ നഷ്ടപ്പെടുന്നതും ഒരുപാട് പേരുടെ ഓൺലൈൻ ഗെയിമുകൾ ഗെയിമിങ്ങിലൂടെ പൈസ നഷ്ടപ്പെടുന്നതും എല്ലാം ഈ സാങ്കേതികവിദ്യ കാരണമാണ് അത്കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങളും നമ്മുടെ വ്യക്തിപരമായ ഫോട്ടോസ് വീഡിയോസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ സാങ്കേതികവിദ്യയിലൂടെ നമുക്ക് ആരെ വേണമെങ്കിലും കാണിക്കാവുന്നതും ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാവുന്ന എന്ത് വേണേലും ചെയ്യാവുന്നതുമാണ് പക്ഷെ ഇതൊന്നും ഒരിക്കലും സേയ്ഫായിട്ടുള്ള കാര്യമല്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോർത്തി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇത് ഉള്ളത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയുടെ ചില പ്രതികൂല ഫലങ്ങളാണ് ഇതെല്ലാം